ഇപ്പോൾ നമ്മുടെ ഈ ബൈക്കിംഗ് മേഖല എന്ന് പറയുന്നത് വിനോദ സഞ്ചാര മേഖല പോലെ അതിലുപരി കുറച്ചും കൂടെ നമുക്ക് എന്താ പറയുക ആ വിനോദ സഞ്ചാര മേഖലയിൽ ഉൾപ്പെടുത്താവുന്ന ഒരു സംഭവം തന്നെയാണ് നമ്മുടെ ഈ ബൈക്കിംഗ് ഐപി അതില് നമുക്ക് കൂടുതലായിട്ട് എന്താ പറയുക ആൾക്കാര് ഇപ്പോൾ ഇപ്പോഴത്തെ കുറെ ആൾക്കാര് ഈ യുവ തലമുറ കൂടുതൽ ആയിട്ടും ആ രീതിയിലേക്ക് ഇറങ്ങി വരുന്നുണ്ട് എന്താ പറയുക ബൈക്കിംഗ് രംഗത്തേക്ക് അവരുടെ ഒരു കാഴ്ചപ്പാട് കുറച്ചും കൂടെ മുന്നോട്ട് വരുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ഈ ബൈക്കിംഗ് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഓരോ സ്ഥലത്തെയും വെറൈറ്റി ആയിട്ടുള്ള ഭക്ഷണങ്ങള് സംസ്കാരങ്ങള് ഇപ്പോൾ ഇന്ത്യ തന്നെ നമ്മള് നോക്കുവാണെന്നു പറയുമ്പോൾ കേരളം തമിഴ്നാട് കർണാടക ആന്ധ്ര മണിപ്പൂര് മേഘാലയ കാശ്മീര് അങ്ങനെ വിവിധ സ്ഥലത്ത് വിവിധ തരങ്ങളായ സംസ്കാരങ്ങളും കാര്യങ്ങളും ആയിരിക്കും ഭക്ഷണ രീതികള് വസ്ത്ര ധാരണങ്ങള് പെരുമാറ്റം അങ്ങനെ ഓരോന്നും വ്യത്യസ്തം ആയിരിക്കും നമുക്ക് അപ്പോൾ ഇങ്ങനെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ പോകുമ്പോൾ അവരുടേതായ കുറെ സ്ഥ കാര്യങ്ങള് നമുക്ക് അവിടെ കണ്ട് പഠിക്കാം മനസിലാക്കാം അവരുടെ ജീവിത രീ ജീവിത ശൈലി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അങ്ങനെ കുറെ ഉപകാരങ്ങള് നമുക്ക് ഉണ്ട് പിന്നെ നമ്മടെ ഈ ബൈക്കിംഗ് അതായത് കുറെ ആൾക്കാര് എന്തെങ്കിലും ജീവിതത്തില് പ്രശ്നങ്ങള് വരേ അല്ലെങ്കില് ബുദ്ധിമുട്ട് അങ്ങനെ എന്തെങ്കിലും വരുമ്പോൾ അല്ലെങ്കി അവർക്ക് മാനസികമായിട്ട് ഒരു റിലീഫ് കിട്ടാൻ വേണ്ടിട്ട് അങ്ങനെ ഒക്കെ ആണ് ബൈക്കിംഗ് മേഖലയിൽ കാണുന്നത് അപ്പോൾ അതും ഈ ബൈക്കിംഗ് മേഖലയെ അയിന്റായത് എന്താ പറയുക ഈ ബൈക്കിംഗ് രംഗത്ത് കുറെ ആൾക്കാർക്ക് അങ്ങനെയും കുറെ ആശ്വാസം ആയി തീരുന്നുണ്ട് ഇതുകൊണ്ട് നമ്മള് നോക്കുവാണെന്നു പറയുമ്പോ നമ്മള് ഇതിനെ സപ്പോർട്ട് ചെയ്യണം എന്താ പറയുക നല്ല രീതിക്ക് അവർക്ക് നല്ല ഹെല്പും കാര്യങ്ങളും ഒക്കെ ചെയ്തു കൊടുക്കണം പക്ഷെ എന്നാ കുറെ ആൾക്കാര് ഇതിനെ ന എന്താ പറയുക ഈ രംഗത്ത് എല്ലാ മേഖലയിലും ഉള്ള പോലെ കുറച്ച് മോശപ്പെട്ട ആൾക്കാരും ഉണ്ട് അപ്പം അവരെ ഒക്കെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി നമ്മടെ ഈ ബൈക്കിംഗ് മേഖലയെ കുറച്ചും കൂടി മെച്ചപ്പെട്ട രീതിയില് വളർത്തി എടുക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം